കൊട്ടാരക്കരക്ക് അ അടുത്ത് അതായത് കൊല്ലം ജില്ലയില് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മുട്ട്ര പാറയെന്നു പറഞ്ഞൊരു എന്താണ് ലൊക്കേഷനുണ്ട് അപ്പോള് അതൊരു അതിമനോഹരമായ അതിമനോഹരമായ ഒരു മലയാണ് അപ്പോള് നമുക്ക് ഈ പറഞ്ഞ ഒരു ആറു മണി ഏഴു മണി ആ ഒരു സമയത്ത് നമുക്കവിടെ ചെന്നുകഴിഞ്ഞാല് നമുക്ക് നമുക്ക് ഒരു നമ്മള് സ്വർഗ്ഗത്തിന്ന് സ്വർഗത്തില്നിന്ന് മേഘങ്ങള്ക്കിടയിൽ കൂടെ നില്ക്കുന്ന ഒരു ഫീൽ നമുക്കൊകെ നല്ലവണ്ണം ഫീൽ അതുപോലെ നല്ലൊരു കാറ്റും മഴയൊക്കെ പെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മള്ക്ക് ഒരു ഫുൾ മഞ്ഞോട് മൂടിയ വളരെയധികം നമുക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ടും അധികം വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു അതായത് അധികം തിരക്കില്ലാത്തതിൻ്റെ കാരണം അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലമുണ്ട് മുട്ട്ര പാറ എന്നു പറഞ്ഞ അപ്പോള് മുട്ട്രാ പാറയോടടുത്ത് നമുക്ക് എന്താണ് ഒന്നു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കില് അതിനു തൊട്ടടുത്ത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് അപ്പോള് അവിടെ ചെന്നുകഴിഞ്ഞാല് നല്ല അടിപൊളി ചട്ടിച്ചോറും അതുപോലെ എന്താണ് നല്ല ക് സ് നല്ല രുചിയുള്ള കഞ്ഞിയും അതിൻ്റെ കൂടെ ക കഴിക്കാൻ കപ്പ പുഴുക്കും പിന്നെ എന്താണ് കോംപ്ലിമെന്റായിട്ട് തരുന്നെണ് ക കപ്പ പുഴുക്കും ചമ്മന്തിയും അതുപോലെ തന്നെ മുളക് ചമ്മന്തി അങ്ങനെ നമ്മള്ക്ക് വയറ് നിറച്ച് വയറും മനസ്സും നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ പറഞ്ഞ കഞ്ഞിപ്പുര എന്ന് പറയുന്നത് ഒരു കട അപ്പോള് വളരെ എന്താണ് ഒരുപാട് വർഷത്തെ ഇ ഇതൊന്നുമല്ല വളരെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ് എന്നിരുന്നാൽ കൂടി ഒരു ഒന്നൊന്നര വര്ഷത്തിനുമും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോള് അത്രയും അധികം ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് അപ്പോള് ആ അതിൻ്റെ അവിടെ വന്നുകഴിഞ്ഞാൽ നല്ല നല്ല കഞ്ഞി അതുപോലെ ഒരുപാട് അധികം വെ എന്താണ് ഫ വിഭവങ്ങളുണ്ട് അതായത് നമുക്ക് ഇ ഇതിൻ്റെ കൂടെ കൂട്ടാൻ കരിമീൻ പൊള്ളിച്ചത് അതുപോലെ ബീഫ് ഒലത്തിയത് അതുപോലെ ചിക്കൻ്റെ കുറെ ഐറ്റംസ് അതുപോലെ ഞണ്ട് കറി അങ്ങനെ കുറേ നമുക്ക് വയറും മനസ്സ് നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കില് ഈ പറയുന്ന മുട്ട്ര പാറയ്ക്കടുത്ത് തന്നെ അവിടുന്നൊരു മൂന്ന് കിലോമീറ്റർ മാറിത്തന്നെ ഈ പറഞ്ഞ എന്താണ് കഞ്ഞിപ്പുരയെന്നു പറഞ്ഞാല് അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെ നമുക്ക് ആ എന്താണ് ഒര് കള്ളുഷാപ്പുണ്ട് അപ്പോള് ആ കള്ളുഷാപ്പിപോന്നെ എന്താണ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അതായത് നമ്മുടെ ഈ കൊല്ലം ജില്ലയില് നമുക്കിതുപോലെ ഇതുപോലുള്ള കള്ള് ഷാപ്പുകൾ വളരെ കുറവാണ് നമ്മളീ ആലപ്പുഴ ജില്ല അതുപോലെ പറഞ്ഞ ജില്ലയിലൊക്കെ കാണുന്നൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയില് വളരെ കുറവാണ് അപ്പോള് അങ്ങനെ അധികം ആർക്കും അറിയാത്ത ഒരു സ്പോട്ട് ആണ് ഈ പറഞ്ഞ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഈ കള്ളു ഷാപ്പ് എന്ന് പറയുന്നെ അപ്പോള് അവിടെ ചെന്നു കഴിഞ്ഞാല് പ്രത്യേക ദിവസങ്ങളിലും അതായത് ഓരോ ദിവസമിടവിട്ട് തിങ്കളും ബുധനും വെള്ളി ദിവസങ്ങളില് വളരെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ഫുഡ് മ കഴിക്കണം എന്നുണ്ടെങ്കില് അവിടെ ചെന്നാല് മതി കാരണം നമ്മള്ക്ക് ഇതുപോലെ പ വേറെ വേറെ ജില്ലയിലൊക്കെ ഉണ്ടാക്കുന്ന പല ഡിഷുകളും നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ അവിടെ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം എന്താണ് ഈ പറയുന്നെ കരിമീൻ പൊള്ളിച്ചത് അതുപോലെ ഞണ്ട് ഞണ്ടുകറിയും അതുപോലെ കൊഞ്ച് വറവും അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് പലതരത്തിലുള്ള രുചികള് ടേസ്റ്റെയാൻ അല്ലെങ്കില് ന രുചിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് നമുക്കത് കാണാം കാരണം എന്താണ് അധികം ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഹിഡൻ പ്ലേസസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഈ പറയുന്ന മുട്ട്ര പാറയൊക്കെയായാലും നമ്മൾ അവിടെ ചെന്നുകഴിഞ്ഞാല് നമുക്കറിയാം സാധാരണ അതുപോലതൊരു പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മള് കയറിക്കഴിഞ്ഞാല് ആ വളരെ അധികം എന്താണ് ആൾക്കാര് വം വരാൻ സാധ്യത ഉള്ള ഒരു വട്ടം വന്നുകഴിഞ്ഞാൽ വീണ്ടും നമ്മളെ വരാൻ കൊതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബിൽഡാ ബിൽഡാണ് അവിടെ പണിഞ്ഞിരുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി അതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഹ ഹിഡൻ പ്ലേസെന്ന് പറയാൻ കാരണം അത് ടൂറിസ്റ്റ് പ്ലേസായിട്ട് നമുക്ക് കണ്ടില്ല നമ്മള് മാപ്പിലൊക്കെ അടിച്ചുനോക്കിക്കഴിഞ്ഞാല് നമുക്ക് അത് കാണാൻ പറ്റും കൊട്ടാരക്കരയൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും എന്നിരുന്നാല്ക്കൂടി എന്താണ് നമ്മളതൊരു ഗവൺമെൻ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മള് കാഴ്ചക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോള് അത് എന്താണ് ഒന്നുകൂടെ നോക്കിയും കണ്ടും ഒക്കെ ഗവൺമെൻ്റ് ഇതിൽ ഇടപെട്ട് അതോന്നുകൂടെ ഒന്ന് റീഫർബിഷ് ചെയ്തു നല്ലൊരു രീതിയിലൊന്നും പണിഞ്ഞ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി കഴിഞ്ഞ് അതിനെക്കുറിച്ച് കുറച്ച് പ്രൊമോട്ട് പ്രൊമോട്ടിങ് കൂടെ ചെയ്തു കഴിഞ്ഞാല് പിന്നീട് എന്താണ് നമുക്ക് ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ളേസായിട്ട് അതായത് ഇപ്പോള് നമുക്ക് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസുകളില് എന്താണ് വള ഓരോ സ്ഥലങ്ങള് പോലെ വളരെ മികച്ച രീതിയിൽ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോള് അത്തരത്തില് ഒരു എന്താണ് വിഭവങ്ങള് കഴിക്കാനും അല്ലെങ്കില് അതുപോലെ അതുപോലെ നമുക്ക് വീട്ടിൽ ഒരു ഊണുണ്ട് വീട്ടിലൂണ് അതായത് വീട്ടിൽ ഊണെന്നുവച്ചാല് നമ്മുടെ നാടൻ രുചിയായിട്ടും നമുക്ക് ചിലവർക്കൊക്കെ അറിയാം ചിലവർക്കൊക്കെ ഈ പറയുന്ന പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും എന്താണ് ചിലപ്പോള് നമ ഇഷ്ടപ്പെട്ടന്ന് വരില്ല അപ്പോള് അങ്ങനുള്ളവർക്ക് നമ്മള് നമ്മുടെ സ്വന്തം വീട്ടില്നിന്ന് കഴിക്കുന്ന പോലെ വളരെയധികം എന്താണ് വിഫാ കറികളും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ പറഞ്ഞേ വീട്ടിലെ ഊണെന്ന് പറയുന്നത് അപ്പോള് അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ അങ്ങ് വീട്ടിൽ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതുപോലെ വീട്ടിലെ രുചീ നമ്മക്കാസ്വദിക്കാൻ പറ്റും അപ്പോള് ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കും ഈ പറഞ്ഞ കൊട്ടാരക്കരയ്ക്കടുത്ത് ഇ പറഞ്ഞ മുട്ട്ര പാറയുടെ അടുത്തായിട്ട് നമുക്ക് ഇതുപോലുള്ള കടകളുണ്ട് അപ്പോള് അവിടെ പോയിക്കഴിഞ്ഞാല് നമുക്ക് വളരെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വീട്ടിലെ രുചികളോട് താല്പര്യം ഉള്ള ആൾക്കാർക്ക് അവിടുന്ന് വളരെ നല്ല രീതിയിൽ മനസ്സും വയറും നിറച്ചു് ചോ ഫുഡ് ചോറും കഴിക്കാം അതുകഴിഞ്ഞ് നമ്മുടെ ഈ മുട്ട്ര പാറക്കടുത്തുതന്നെ നമുക്ക് വെള്ളച്ചാട്ടമുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഹിഡൻ സ്പോട്സാണ് അതുകൊണ്ടുതന്നെ അവിടെ ആൾക്കാർക്കില്ല ആൾക്കാര് പരമാവധി അതായത് താരതമ്യേന കുറവാണ് അപ്പോള് ഇതിനെപ്പറ്റി ഈ സ്ഥലത്തെ പറ്റി ഒരുവട്ടം നമ്മൾ പോയിക്കഴിഞ്ഞാല് നമ്മളെ വീണ്ടും വരാൻ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അപ്പോള് അതിനടുത്ത് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോള് ഇത്തരത്തില് ഇതുപോലുള്ള കുറെ ഹിഡൻ സ്പോട്സ് ഈ പറഞ്ഞ നമ്മുടെ കൊല്ലം ജില്ലയ്ക്കകത്ത് അല്ലെങ്കില് ഞ ഈ ഞങ്ങളുടെ ഈ ഏരിയയുടെ അകത്ത് ഉണ്ട് അപ്പോള് ഹിഡൻ സ്പോട്സ് നമ്മള് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോള് ഇതിനെപ്പറ്റി കൂടുതല് ഇതൊക്കെ ഈ പറഞ്ഞ് ഹിഡെൻ സ്പോട്സ് ഒക്കെ നമ്മള് ഒരുവട്ടം ചെന്നുകഴിഞ്ഞാല് വീണ്ടും നമ്മളെ വരാൻ കൊതിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോള് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മള് എന്താണ് ഗവൺമെൻ്റ് അതൊക്കെ ഒന്ന് ഏറ്റെടുത്തിട്ട് അതൊക്കെ ഒന്ന് ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയി മാറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമുക്ക് നല്ല എന്താണ് ഇത്തരത്തിലുള്ള സ സ്ഥലത്തൊക്കെ നല്ലൊരു എന്താണ് നല്ലൊരു ടൂറിസം പോലെ ആക്കാന് ആ ടൂറിസത്തിലൂടെ നമ്മുടെ എന്താണ് ബിസിനസും കാര്യങ്ങളും അതിനെ ഒക്കെ നമ്മള് ഒരു വളർച്ചയിലോട്ട് എത്തിക്കാനും നമ്മുടെ ഒരു

അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ടൂറിസം മേഖല വളർച്ച ടൂറിസം മേഖല വളർച്ച വളരുന്നത് കൂടെ നമുക്കറിയാം നമ്മുടെ ബിസിനസുകളും വളരും അപ്പോള് അത്തരത്തില് നമ്മള് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വളർച്ചയിലോട്ടെത്തിക്കാൻ നമ്മളെ ഗവൺമെൻ്റ് ഒന്ന് ഇതിനെയൊന്ന് പരിഗണിക്കണം അല്ലെങ്കില് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഒന്ന് നമുക്കുണ്ട് അപ്പോള് ഇതുപോലുള്ള ചില ആൾക്കാരുടെ നമ്മളെ ഇതുവരെ നമ്മുടെ വയറും മനസ്സും നിറയ്ക്കുന്ന രീതിയിലുള്ള രുചികളൊക്കെ നമ്മൾ ഇതുവരെ നമ്മൾ കാണാതെ പോകുന്ന ആൾക്ക സ്ഥലങ്ങളുമൊക്കെ ഒന്ന് കണ്ട് കേട്ട് അപ്പോഴതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൊക്കെ വരുമ്പോള് നമ്മള്ക്ക് വ എന്താണ് വയറും മനസ്സും എല്ലാം നിറച്ച് കഴിക്കാനുള്ള രുചികൾക്കൊക്കെ പലതരത്തിലുള്ള രുചികള് അറിയാ അറിയാനൊക്കെ ഒരവസരം കിട്ടുകയും ചെയ്യും ഇതുപോലൊരു ടൂറിസ്റ്റ് പ്ലേസുകൾ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു രീതിയിലോട്ട് എന്താണ് ഒരു ഇപ്പറഞ്ഞ നമ്മുടെ വർക്കല ക്ലിഫൊക്കെ പോലെ നല്ലൊരു സ്ഥലമാക്കി കഴിഞ്ഞാല് അവിടെയും നമ്മളുടെ ഫോറിനേഴ്സും അതുപോലെ എന്താണ് പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാര് വ വരികയും എത്തിച്ചേരുകയും അത് നമ്മുടെ ഒരു ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു വളർച്ചയിലോട്ട് എത്തിക്കാൻ നല്ല രീതിയിൽ ചാൻസുണ്ട്